തീർച്ചയായിട്ടും മലയാള ഭാഷക്ക് ഞാനൊരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് മാധ്യമങ്ങളിലും നമ്മുടെ വിദ്യഭ്യാസ രംഗങ്ങളിലുമെല്ലാം മലയാള ഭാഷയെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടു വരുകയാണ് ചെയ്യേണ്ടത് നമ്മൾ മലയാളം ചെറുപ്പംതൊട്ടേ പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മലയാള ഭാഷ വളരെ നിസാരമായിട്ട് തോന്നുന്നത് എന്നാൽ മലയാള ഭാഷ വളരെ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നമ്മുടെ ഭാഷ ഒരുപാട് നല്ല ഭാഷയാണ് അത് നമ്മൾ മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുമ്പോൾ അപമാനമായി കാണാതെ മലയാളത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടുകൂടി അത് പഠിച്ചെടുക്കുകയാണ് വേണ്ടത് എപ്പോയും മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നമുക്ക് ഇതുപോലൊരു ഭാഷ സ്വന്തമായിട്ട് ലഭിച്ചിരിക്കുന്നത് മലയാള ഭാഷ വളരെയധികം നമ്മുടെ മലയാള ഗാനങ്ങളെല്ലാം വളരെ മനോഹരമാണ് വിദ്യഭ്യാസ രംഗത്തും മലയാളം ഒരുപാട് മുന്നോട്ടേക്ക് കൊണ്ടുവരേണ്ടതും എല്ലാം മലയാളം മീഡിയം സ്കൂളുകളാവേണ്ടതുമാണ് മാധ്യമ രംഗത്തും മലയാളത്തിലൂടെ വാർത്തകൾ വായിക്കുകയും മലയാളത്തിലൂടുള്ള മറ്റ് വീഡിയോകളും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു കാഴ്ച്ചപ്പാട്